പാട്ടിലേക്ക് ഞാൻ ഡൈനാമിക്സ് കൊണ്ടുവരുന്നത് എപ്പോഴും അതിൻ്റെ വരികളെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഇപ്പോൾ ഒരു പാട്ട് കേൾക്കുമ്പോൾ അതിൻ്റെ വരി തുടങ്ങി ഒരു വാക്കിൽ അവ തുടങ്ങി മറ്റൊരു വാക്കിൽ അവസാനിക്കുകയായിരിക്കും ഒരു വരി അതുപോലെ അടുത്ത വരി വരുമ്പോഴും ഈ അവസാനിക്കുന്ന വാക്കുകളുടെ അവസാനം വരുന്ന വാക്കുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും കൂടുതലായിട്ടും ഡൈനാമിക്സ് കൂടുതലായിട്ട് കൊണ്ടുവരാൻ നോക്കുന്നത് കാരണം അതിൻ്റെ ഒരു താളത്തിന് അനുസരിച്ചായിരിക്കും പാട് പാട്ട് ഒഴുകി പോകുന്നത് അപ്പോൾ കൂടുതലായിട്ടും ഡൈനാമിക്സ് കൊണ്ടുവരുന്നത് അതിൻ്റെ വരികളിൽ ആയിരിക്കും പിന്നെ വരികൾ എന്ന് പറയുമ്പോൾ അർത്ഥവത്തായിട്ടുള്ള വരികളായിരിക്കും ചിലപ്പോൾ ചിലപ്പോൾ അർത്ഥവത്താവാത്ത വരികളുമുണ്ട് പക്ഷേ ആ ഒരു താളത്തിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ പോകുമ്പോൾ പാട്ടിൻ്റെ വരികൾ വരികളുടെ അർത്ഥം ആരും നോക്കാറില്ല എന്നതാണ് എന്നതാണ് മറ്റൊരു സത്യം അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് പാട്ടിൽ ഡൈനാമിക്സ് കൊണ്ട് വരുന്നത് പിന്നെ ചിലപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ഒരു ഒരു ഒരു ചലനാത്മകത തോന്നും ഒരു പാട്ടിൽ എന്തെങ്കിലും ചലനാത്മകത തോന്നും ഒരു ഇപ്പോൾ ആരെങ്കിലും ഡൈനാമിക്സ് മുന്നേ കൊണ്ടുവന്നിട്ടുള്ള ഒരു സോങ് ആയാലും നമ്മൾ വെറുതെ പാടുമ്പോൾ പുതിയൊരു താളം അതിൽ വരും അപ്പോൾ നമ്മൾ നമ്മളുടേതായ രീതിയിൽ വേറൊരു വേറൊരു ഇതിൽ നമ്മൾ ഉണ്ടാക്കി നോക്കും അപ്പോൾ അത് കുറച്ചുകൂടെ നമുക്ക് സ്യുട്ടബിൾ ആയിട്ട് കാണും അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്